ഇന്ന് എല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങി പോകുകയാണല്ലോ ആ ഒരു രീതി തന്നെയാണ് വസ്ത്രനിർമാണമേഖലയിലും കണ്ട് വരുന്നത് പണ്ട് കാലങ്ങള് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് വളരെയധികം ആവിശ്യക്കാർ ഉണ്ടായിരുന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടത്തില് റെഡി മെയ്ഡ് വസ്ത്രങ്ങളെക്കാളും കൂടുതൽ ആവശ്യക്കാർ കൈത്തറി മേഖലയിലെ വസ്ത്രങ്ങൾക്കാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് റെഡിമെയ്ഡിനെ അപേക്ഷിച്ച് ഗുണമേന്മയിലും ആകർഷണത്തിലും കൈത്തറി വസ്ത്രങ്ങൾ മുന്നിലാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഗുണമായിട്ട് നമ്മൾ കണ്ട് വരുന്നത് റെഡി മെയ്ഡ് വസ്ത്രങ്ങൾ നമ്മൾ അലക്കുമ്പോൾ അതിൻ്റെ നിറം മങ്ങി പോകുകയും അതിൻ്റെ ഗുണം നഷ്ട്ടപ്പെട്ട് പോകുകയും ചെയ്യുമ്പോൾ കൈത്തറിയിൽ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൈത്തറി മേഖലയിൽ ഉത്പാദിപ്പിക്കുന്ന കൈത്തറി വസ്ത്രങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള പോരായ്മകൾ കണ്ട് വരുന്നില്ല ഇതുതന്നെയാണ് ഇന്ന് കൈത്തറി വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ കൂടുവാനുള്ള പ്രധാനമായിട്ട് കരണമായിട്ട് നമ്മൾ കണ്ട് വരുന്നത്